ഞാൻ ഒരു ഗെയിമിനെ ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ സ്വയം ഒരു ഗെയിം കണ്ടന്റ് ഉണ്ടാക്കുകയോ ചെയ്തുനോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാൻ ഗെയിമൊക്കെ കളിക്കാറുണ്ട് പക്ഷെ എനിക്കത് കണ്ടന്റ് അതായത് അതിൻ്റെ ഒരു ഗെയിമിനെ ഭേദഗതി വരുത്താനോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല ഗെയിം കളിക്കൽ തന്നെ ഞാനീ കൊറോണ ടൈമിലാണ് ഗെയിമൊക്കെ കളിക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ ഇപ്പോഴും കളിക്കുന്നുണ്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമൊക്കെയാണ് കളിക്കാറ് പക്ഷെ എനിക്കത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ പിന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്ക് അറിയില്ല അത് ഞാൻ ചെയ്ത നോക്കിയിട്ടുമില്ല